ഹലോ അനൂ ഗ്യാസ് ഏജൻസിയല്ലേ നിങ്ങൾ ഇപ്പം ഞാൻ എത്ര ദിവസമായി നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെന്താണ് കൊണ്ടു തരാത്തത് എന്നാണ് നിങ്ങളെനിക്ക് ഗ്യാസ് കൊണ്ടു വരുന്നത് കുറെ ദിവസങ്ങളായിട്ട് ഞാൻ നോക്കിയിരിക്കുവാ കൊണ്ടുവരുമെന്നു പറഞ്ഞ്